ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഞങ്ങളുടെ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ വളരെ നല്ല രീതിയിൽ സ്വാധീനിച്ച ഒരു സർക്കാർ പദ്ധതിയാണ് നാഷ്ണൽ സർവ്വീസ് സ്കീം നാഷ്ണൽ സർവ്വീസ് സ്കീമിനെ പറ്റി പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം മാത്രമല്ല സന്നദ്ധ സേവനവും ലക്ഷ്യമാക്കി ഉള്ള ഒരു സന്നദ്ധ സംഘടനയാണ് നാഷ്ണൽ സർവ്വീസ് സ്കീമെന്നത് അതായത് വിദ്യാഭ്യാസമെന്നു പറയുന്നത് സേവനവുമാണ് എന്ന് ഊന്നി പറയുന്ന അതിനെ നോട്ട് മീ ബട്ട് യൂ എന്ന് ഊന്നി പറയുന്ന ഒരു സംഘടനയാണിത് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഹയർ സെക്കണ്ടറി മുതൽ കോളേജ് വിദ്യാഭ്യാസം വരെ ബിരുദം ബിരുദവും ബിരുദാനന്തര ബിരുദവും പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നു ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് അതായത് ചേരാനായിട്ടവസര അവസരമുള്ളൊരു പദ്ധതിയാണ് ഈ നാഷ്ണൽ സർവ്വീസ് സ്കീമെന്നത് ഇതിലൂടെ ആ ഒരു പ്രദേശത്തെ മുഴുവൻ വികസനത്തിലേക്ക് നയിക്കാനായിട്ടും സന്നദ്ധ സേവനങ്ങൾ നൽകാനായിട്ടും എല്ലാ എൻ എസ് എസ് വോളണ്ടിയേഴ്സും കഠിനമായിട്ട് പരിശ്രമിച്ചു വരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഒരുപാട് നാഷണൽ സർവ്വീസ് സ്കീം അതുപോലെ തന്നെ നേച്ചർ ക്ലബ് സംഘടന അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് സംഘടന അങ്ങനെ ഒരുപാട് സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ സി സി റെഡ് ക്രോസ് അങ്ങനെ അങ്ങനെ ഉള്ള ഒരുപാട് സംഘടന വിദ്യാർത്ഥികളുടെ സേവന മനോഭാവമുണ്ടാക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് വിദ്യാർത്ഥികളിലെ സന്നദ്ധ മനോഭാവവും ലീഡർഷിപ്പ് ക്വാളിറ്റിയും വളർത്താനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സന്നദ്ധന സന്നദ്ധ സംഘടനയാണ് ഈ പറഞ്ഞവയെല്ലാം വിദ്യാത്ഥികളിൽ പൗര ബോധവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയും വളർത്തിയെടുക്കാനായിട്ട് ഈ സന്നദ്ധ സംഘടനകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഇതിനോടൊപ്പം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സ്കൂളിൽ നൽകുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകി വരുന്ന പാഠ്യേതര പദ്ധതികളെന്നു പറയുന്നത് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരുപാട് പഠന പാഠ്യേതര പ്രോഗ്രാമുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരിലെ കഴിവിനെ കണ്ടു പിടിച്ച് അത് എങ്ങനെ ഒരു ജനതയ്ക്ക് മുഴുവൻ സഹായമാകുമെന്ന് കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ളൊരു സന്നദ്ധ സംഘടനയ്ക്ക് സാധിച്ചു വരുന്നുണ്ട് അതു പോലെ ഓരോ കുട്ടികളിലെയും മനുഷ്യത്വത്തെയും സാമൂഹ്യ പ്രതിബദ്ധതയെയും കണക്കിലെടുക്കുമ്പോൾ ഈയൊരു സന്നദ്ധ സംഘടനകൾ നൽകി വരുന്ന പങ്കെന്നു പറയുന്നത് ചെറുതല്ല അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രദേശത്തെ വിദ്യാഭ്യാസത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന മറ്റനേകം പദ്ധതികളുണ്ട് സാമൂഹ്യ സന്നദ്ധ പ്രവർത്തികളുണ്ട് സമൂഹത്തെ മുഴുവനായിട്ടും സാമൂഹ്യ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ കുറിച്ച് ബോധവാന്മാരായിട്ടുള്ള തലമുറയെ വാർത്തെടുക്കാനായിട്ട് ഇതു കൊണ്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സന്നദ്ധ സംഘടനയിലെ ഏറ്റവും വലിയ മാതൃകയായ ഒരുപാട് ആൾക്കാരെ കണ്ട് മുട്ടാനും അവരുമായി സംവാദിക്കാനുമുള്ള അവസരങ്ങൾ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട്